ആ ഇപ്പോൾ പണ്ടൊക്കെയാണ് ക്ളാസിക്കൽ ഡാൻസിനൊക്കെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നത് ഇപ്പം എല്ലാവരും വെസ്റ്റേൺ ഡാൻസ് സ് സ്റ്റൈലിലേക്കാണ് വരുന്നത് ഇപ്പം എൻ്റെ മോനായിരുന്നു നന്നായി ഡാൻസെയ്യും ഇപ്പോൾ ടീവിയിലും യൂട്യുബിലും ഒക്കെ നോക്കിയിട്ട് തന്നെ ആ അതിലും അതിനിപ്പം അതിനെപ്പറ്റി പല ചാനൽസും ഉണ്ട് അപ്പം അത് നോക്കി അവൻ ഡാൻസ് ചെയ്യാറുണ്ട് പിന്നെ പിന്നേ എന്താ പറയുക വെസ്റ്റേൺ മാത്രമല്ല ഇപ്പം ഏത് വാക്കുകളൊക്കെ പല രീതിയിലുള്ള എങ്ങനെയാണോ ഓ അവരിൽ നിന്ന് യുണീക്കാവാൻ നോക്കുന്നോണ്ടാണ് അപ്പോൾ അവര് പല രീതിയിലുള്ള ടൈപ്സ് ഓഫ് ഡാൻസസ് പഠിക്കാനായിട്ട് ഓര് ശ്രമിക്കുന്നുണ്ട് പിന്നെ അതിനുള്ള നല്ല സപ്പോർട്ടും നമ്മുടെ അത് കൊടുക്കുന്നുമുണ്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിലായാലും നാട്ടിലുള്ളവര് കൊടുക്കും സ്കൂളിലായാലും എല്ലാത്തിലും ഇപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്കൂളിലെ മാനേജ്മെൻറ്റും എല്ലാവരും